ഇപ്പം ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം അത്പോലെ കഥകളി ഇതൊക്കെയാണ് ഇന്ഡ്യയുടെ തനതായ കലാരൂപങ്ങളാണ് അപ്പം ഇന്ഡ്യക്ക് പുറത്തൊരവസരം കിട്ടിക്കഴിഞ്ഞാല് ഇത് കലാരൂപങ്ങള് കാണിക്കാനൊരവസരം കിട്ടിക്കഴിഞ്ഞാല് ഞാന് ഇതായിരിക്കും കാണിക്കുക കാണിക്കുക ഇതിന്റെ കാരണമെന്തെന്ന് വെച്ചഴിഞ്ഞാല് ഒരുപാട് ഈ എല്ലാ കലാരൂപങ്ങള്ക്കും അതിന്റെതായ തനതായൊര് ശൈലിയുണ്ട് അതിന്റെതായ മ്യൂസിക്കുണ്ട് അതിന്റെതായ മേയ്ക്കപ്പുണ്ട് അത് കാണാന് വളരെ ആകര്ഷകവുമാണ് അത്പോലെതന്നെ അതിന്റെ വ്യത്യസ്തത അതിനെ ഒരു പ്രത്യേക രീതിയില് നമ്മളെ ആകര്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പം മോഹിനിയാട്ടത്തിലാണെങ്കിലും കുച്ചിപ്പുടിയിലാണെങ്കിലും നിരവധി നിരവധി ആയിട്ടുള്ള കാര്യങ്ങളും കഥകളുമൊക്കെ കഥകളിയിലൊക്കെ ഇങ്ങനെ അവതരണം ഒര് പ്രത്യേക രീതിയിലാണത് നടത്തുന്നത് സാധാരണ കലാരൂപങ്ങള്പ്പോലെയല്ല അത് ചെയ്യ്ന്നത് ഒര് പ്രത്യേക രീതിയിലാണ് അതിന്റെ അവതരണം നടത്തുന്നത് അപ്പം അത് കാണാനൊരു യുണീക്നെസ്സ് ഉണ്ടാകും മോഹിനിയാട്ടത്തിലാണെങ്കിലും അതിന്റെ ശൈലിയിൽ വ്യത്യാസമുണ്ട് ഡാന്സിന്റെ ഭംഗിയില് വ്യത്യാസമുണ്ട് അതിന്റെ സ്റ്റെപ്പുകളില് വ്യത്യാസമുണ്ട് മേയ്ക്കപ്പില് വ്യത്യാസമുണ്ട് അതിലണിയുന്ന വസ്ത്രങ്ങളിലാണെങ്കിലും അത്പോലെതന്നെ ഓര്ണമെന്സിലാണേലും വ്യത്യാസമുണ്ട് കഥകളി എന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ മേയ്ക്കപ്പ്സ് കൂട്തലായിട്ടുള്ള കളര്ഫുള് മേയ്ക്കപ്പ്സ് മുഖത്ത് കളറ്കള് ഉള്ള ഒര് ഇതൊക്കെയാണ് അപ്പം അത്കൊണ്ട് അത് ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടും ഇതൊക്കെ നമ്മെ തീര്ച്ചയായിട്ടും ആകര്ഷിക്കുന്നതായത് കൊണ്ടും ഓ ഓരോ നമ്മുടെ ഇന്ഡ്യയുടെ തനതായ കഥകള് പറയുന്നത് കൊണ്ടും അല്ലെങ്കില് കേരളത്തിന്റെ കേരളത്തിലെ കഥകള് പല നമ്മുടെ ഇന്ഡ്യയിലെ പല സംസ്ഥാനങ്ങള്ടെയും കഥകള് പറയുന്നത് അല്ലെങ്കില് അതിന്റെ ഭാഷാശൈലി നിലനിര്ത്തുന്നതൊക്കെ ആയത്കൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുക്കുന്നത് ഈയൊരു കലാരൂപങ്ങള് തിരഞ്ഞെടുക്കുന്നത്